ഹലോ എടി ഞാൻ നമ്മുടെ മലബാർ റെസ്റ്റോറൻ്റിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിന്നെ വിളിച്ചതായിരുന്നു അപ്പോൾ അവിടെ അവരുടെ ഫുഡ്ഡ് ഒക്കെ എങ്ങനെയാണ് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം ആപ്പിൽ ആപ്പിൽ നോക്കുന്നതിനു മുമ്പ് ആപ്പിലോ ഗൂഗിളിലൊക്കെ നോക്കുന്നതിനു മുമ്പ് നിന്നോടൊന്നു ചോദിച്ചേക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ അവിടുത്തെ ഫുഡ്ഡ് ഒക്കെ അടിപൊളി ആണെന്ന് പറയുന്ന കേട്ടു അത് ശരിയാണോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചത് പിന്നെ അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം വീട്ടിൽ കൊണ്ടുതരുമോ അതുപോലെതന്നെ അവിടുത്തെ റേറ്റിങ്ങ് മലബാർ ഹോട്ടലിലെ റേറ്റിങ്ങ് അതുപോലെതന്നെ ഗുണനിലവാരം ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നീ അപ്പോൾ നിന്നോടും കൂടി ചോദിച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം അറിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടുന്നൊരു ഭക്ഷണം ഓർഡർ ചെയ്യാമായിരുന്നു പിന്നെ ആപ്പിലും നോക്കാം ഗൂഗിളിലും നോക്കാം അപ്പോൾ അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഡെലിവറിയൊക്കെ അവർ ചെയ്യുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്